ആ പറഞ്ഞോളു എവിടെന്നാണ് വിളിക്കണത് ആരാണ്

ആ ഓർമ്മ ഉണ്ട് ഖദീജ അല്ലേ ആ പറഞ്ഞോളു എന്താ അല്ല ഡോക്ടറ് ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞത് അത് ടെസ്റ്റ് ചെയ്തിട്ട് ആ ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ട് വരാനല്ലേ പറഞ്ഞത് അത് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ ആ അതെ ആ ഇനിയിപ്പം എന്നാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് ആ അപ്പം മെഡിസിൻ കഴിഞ്ഞ് വരുമ്പം ഞങ്ങളോട് അത്ര വിശദമായിട്ട് ഡോക്ടറ് പറയില്ല അപ്പം നിങ്ങൾ നേരിട്ട് വരുമ്പോൾ എല്ലാം പറയും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നണു ഇനിയിപ്പത് മരുന്നിന് മാറിയില്ലെങ്കിൽ അവർ പറഞ്ഞു സർജറി ചെറുതായിട്ട് ചെയ്യുവായിരിക്കാം അത്രേ കുഴപ്പം കാണുന്നുള്ളൂ കാരണം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല്യാ അപ്പം മെഡിസിൻ കഴിയുമ്പോൾ വരൂ ആ ആയിരിക്കില്ല്യാ അങ്ങനെയാണെങ്കിൽ വേറെ ടെസ്റ്റുകളൊക്കെ പറഞ്ഞേനേ ഇതിപ്പം എക്സ്റേ എടുത്തിട്ട് ബ്ലഡ്ഡല്ലേ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മരുന്ന് തന്നിട്ടുണ്ടല്ലോ അപ്പം ആ ചിലപ്പോൾ ആ മരുന്നിൽ അത് മുഴ വറ്റിപ്പോവും ഇല്ലെങ്കിൽ ചിലപ്പം ചെറുതായിട്ട് സർജറി ചെയ്തത് മാറ്റേണ്ടി വരും അതിനെന്തായാലും ഈ മെഡിസിൻ കഴിയുമ്പോൾ നേരിട്ട് വരൂ അപ്പം എന്താന്നുള്ളത് ഡോക്ടറ് നേരിട്ട് പറയും പേടിക്കാനൊന്നും ഇല്ല്യാന്നാ തോന്നണത്

അത് അത് ഈ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞിട്ട് അത് വറ്റീട്ടില്ല അതങ്ങനന്നെ മുഴ നിക്കാണെങ്കിൽ അതിൽ ഇൻജെക്ഷൻ ചെയ്ത് ചിലപ്പം അതിന് ഉള്ളിലുള്ള ആ ദ്രാവകം വലിച്ച് കളയാനായിരിക്കും പറഞ്ഞിരിക്കുന്നത് അത് വലിയ ഓപ്പറേഷനൊന്നും ആയിരിക്കില്ല ഒരു ചെറിയ സർജറി മേലെ തീരും അത്രയ്ക്കേ ഉള്ളൂ അത് പേടിക്കണ്ട കൂടുതൽ ശരി ആ ഓക്കെ വെൽക്കം